മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെപ്പോഴും ആരോഗ്യ നിലവാരം കൂടുതലാണെന്നും മെച്ചമുള്ളതാണെന്നേ ഞാൻ പറയു കാര്യം നമ്മുടെ ഇപ്പം എല്ലാ ആശുപത്രി ആശുപത്രിയായാലും ഹൈ ടെക്ക് നിലകളുള്ള എല്ലാതരം ഒരു കണ്ടുപിടുത്തങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻ്റാണ് നടത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ അവിടെ ഒരുപാട് തരം എക്വിപ്മെൻ്റ്സ് ഉണ്ട് വരെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഗുണനിലവാലം ഗുണനിലവാരം ഉള്ള ഓരോ കാര്യങ്ങളാണ് കണ്ടു പിടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്കൊരു ആരോഗ്യ പ്രശ്നമായിട്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞാലവർ നല്ലോണം ട്രീറ്റ് ചെയ്യും നേഴ്സുമാർ ഡോക്ടർമാർ ആരായാലും ഒന്നാമത്തെ കാര്യം എന്നെ സംബന്ധിച്ച് നമ്മുടെ ഭാഷയും സേയിം ആയതിനാൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിത്തരാൻ കഴിയും എന്നാൽ പുറത്തുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്കതിൻ്റേതായൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം അവരുടേതായ ട്രീറ്റ്മെൻ്റ് രീതിയും അവർ പറയുന്നതായ രീതികളും ഒന്നും നമുക്ക് മനസ്സിലാവണമെന്നുള്ളതുപോലും ആയിരിക്കില്ല അല്ലെങ്കിൽ തന്നെ അവിടുത്തെ നേഴ്സുമാർക്കാണെങ്കിലും ഡോക്ട്ടേഴ്സാണെങ്കിലും അവരെ ട്രീറ്റിങ്ങ് മെൻ്റാലിറ്റിയെപ്പോഴും അവരുടേതായ ഒരു ആ രീതികളിലൂടെ എനിക്ക് കൂടുതലും അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത് എന്നാൽ കേരളത്തിലേപ്പോഴും എനിക്ക് സന്തോഷം തോന്നാറുണ്ട് നമ്മുടേതായവർ നല്ലോണം ട്രീറ്റ് ചെയ്യാറുണ്ട് നേഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും പേഷ്യൻസിൻ്റെ പൂർണ്ണ ആരോഗ്യം സുഖപ്പെട്ടതിന് ശേഷമേ നമ്മളെപ്പോഴും അവിടെനിന്ന് ഡിസ്ച്ചാർജ് ചെയ്ത് വിടാറു പോലും ഉള്ളു പിന്നെ ഫുഡുകളാണെങ്കിൽ തന്നെയും നമുക്കേറ്റവും നല്ല ആരോഗ്യപരമായ ഫുഡുകളാണ് നാല് നേരവും തന്ന് നമ്മളെ നല്ല സമ്പുഷ്ടിയുള്ള ആളുകളായിട്ട് ആരോഗ്യവതരാക്കിയാണ് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കാറ്